പണ്ട് പറയുമ്പം ഒര് ന്യൂസ് ഒരു ആളുടെ ചെവിയിൽ എത്താൻ ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറ് ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ എടുക്കുവായിരുന്നു അതായത് പേപ്പറിലൂടെയോ കത്തിലൂടെയോ അങ്ങനെ ഒക്കെ ആണ് പണ്ട് സാറ്റലൈറ്റ് അങ്ങനെ ഒന്നും ഉണ്ടായിരിന്നില്ല ഇപ്പം പറയുമ്പം ഫുൾ സാറ്റലൈറ്റ് നെറ്റ്വർക്കിലൂടെ ഫുൾ വേഗം വേഗം അപ്പപ്പം മിനിറ്റുകളിലാണ് ഇപ്പം മിനിറ്റും വേണ്ട മില്ലി സെക്കൻഡ്സിൽ ആണ് ഇപ്പം എന്ത് ന്യൂസ് ആണെങ്കിലും പലത് എന്ത് ന്യൂസ് ആണെങ്കും ഒരാളുടെ കൈയ്യിൽ എത്തണത് സോഷ്യൽ മീഡിയ വഴി ഈ ന്യൂസ് വഴി ഓരോ പ്ലാറ്റ്ഫോം വഴിക്കും എത്ര പ്ലാറ്റഫോംസ് ആണ് വരുന്നത് ഒക്കെ അതിലൂടെ ഇപ്പം വേഗം വേഗം ആണ് ഇപ്പം ന്യൂസ് എത്തണത് അത്രയും ഇംപ്രൂവ്ഡ് ആണ് ഇപ്പം നമ്മള അത്രയും ഡെവലപ്പ്ഡ് ആണ് നമ്മുടെ സിസ്റ്റം ഇപ്പം